നൃത്തം സ്വാധീനശക്തി ആകുന്നത് അത് കളിക്കുന്ന ആളുടെ എ ഊർജ്ജവും ആ വ്യക്തിയുടെ ശരീരവഴക്കവും കണ്ണുകളിലെ തീഷ്ണതയുടെ സമയത്ത് തീഷ്ണതയും പ്രാ കണ്ണുകളില് കണ്ണുകളിൽ സംഭവിക്കുന്ന വികാരവ്യത്യാസങ്ങളും എല്ലാമാണ് ഒരു നൃത്തത്തെ ഭംഗിയുള്ളതാക്കുന്നത് ഏതൊരു നൃത്തം നോക്കിയാലും അതിന് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് അത് കളിക്കുന്ന ആളുടെ കഴിവ് പോലെയാണ് കഴിവിനനുസരിച്ചാണ് അത് കളിക്കുന്ന ആള് അതിലലിഞ്ഞു ചേർന്ന് ആ വ്യക്തിയുടേതായ എല്ലാ കഴിവും ഉൾപ്പെടുത്തി കളിക്കുകയാണെങ്കിൽ ആ നൃത്തത്തെ വളരെ ഭംഗിയുള്ളതാക്കി മാറ്റാൻ സാധിക്കും ആ വ്യക്തിയുടെ കൈകാലുകളുടെ വഴക്കവും കണ്ണിൻ്റെ തീഷ്ണതയും പ്രകാശവും ചലനശേഷിയും ചല ചലിക്കുന്നതിന്ൻ്റ തായ കഴിവും എല്ലാം ആണ് ഒരു നൃത്തത്തെ ഭംഗി ഉള്ളതാക്കുന്നത് അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നത് ഒരു നൃത്തത്തെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാണ് അത് കാണുന്ന ആൾക്കാർക്ക് വളരെയധികം അതിനെ അതിലാകർഷിക്കാൻ സാധിക്കും